നമ്മൾ കേരളത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളതും നമ്മുടെ മാതൃഭാഷയായിട്ടുമുള്ള ഭാഷയാണ് മലയാളം നമ്മുടെ കേരളത്തിന്റെ ഭാഷയെന്നും എല്ലാവരും പറയുന്ന ഒരു ഭാഷയാണ് മലയാളം ബാക്കിയുള്ള ഭാഷകൾ വച്ചു നോക്കുമ്പം സംസ്കൃതം ആയാലും ഹിന്ദി അറിയാവുന്നവർക്ക് സംസ്കൃതമായാലും ഹിന്ദി ആയാലും ഇംഗ്ളീഷ് ആയാലും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളു പക്ഷേ മലയാളം ഏത് പുറം രാജ്യക്കാർക്ക് ഒക്കെ പഠിച്ചെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ് മലയാളം പഠിച്ചെടുത്താലും ചില വാക്കുകളൊക്കെ കറക്റ്റ് ആായിട്ട് ആ രീതിക്ക് തന്നെ ആയിരിക്കണം എന്നില്ല തെറ്റിച്ചും അങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സംസ്കൃതവും ഇംഗ്ളീഷുമൊക്കെ വച്ച് നോക്കുമ്പം ഏറ്റവും മുൻപന്തിയിലാണ് മലയാളം മലയാളികളെന്ന നിലയ്ക്ക് മലയാളം എന്ന ഭാഷയിലും നമുക്ക് അഭിമാനം കൊള്ളാവുന്ന ഒന്നാണ് എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ വേറെ ഭാഷക്കാർക്കൊ നാട്ടുകാർക്കൊ ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിരു കോരുന്ന ഓ ഇതെന്ത് സംഭവം ഇങ്ങനെയൊക്കെ നല്ല രസമുണ്ടല്ലോ എന്ന് വരെ പറഞ്ഞു പോകുന്ന ഒരു രീതിയിലുള്ള ഭാഷയാണ് മലയാളം സംസ്കൃതവും ഹിന്ദിയും ഇംഗ്ളീഷുമൊക്കെ നല്ല ഭാഷകളാണെങ്കിലും അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് മലയാളം